ആ ഇത് ബ്രോക്കർ അപ്പച്ചൻ അല്ലെ ആ എനിക്ക് ആലപ്പുഴ ജില്ലയിൽ ഇച്ചിരി സ്ഥലം സ്ഥലം കിട്ടിയാൽ കൊള്ളാം വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ മാർക്കറ്റ് വിലയൊക്കെ എങ്ങനെയാ ടൗണ് എന്നാ എല്ലാ വിധ സൗകര്യവും വഴി സൗകര്യവും എല്ലാം വേണം എന്നാ സിറ്റിയിൽ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഒന്നും വേണം എന്ന് പറയുന്നില്ല കുറച്ച് അകത്തോട്ട് കയറി ആയാലും മതി ആ ഒരു രണ്ടു ലക്ഷം വരെ നമുക്ക് നോക്കാം സെൻറ്റിന് ആ ഇപ്പോൾ വീട് പണിയ്യാൻ പറ്റിയ സ്ഥലം ആണോ ആ അപ്പോൾ ഈ എങ്ങനെയാ വഴി സൗകര്യം വെള്ളം ഒക്കെ ഉണ്ടോ പിന്നെ നമുക്ക് വഴി ഇല്ലാതെ പറ്റികേലല്ലോ വഴി വേണ്ടേ

അല്ല വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാ അത് എങ്ങനെയാ കിണറാണോ പൈപ്പ്ലൈൻ ആണോ മ്മ് അപ്പോൾ അങ്ങനെ ഉള്ളയിടത്ത് സെൻറ്റിന് എന്ത് വിലയാകും അത് ഇച്ചരി കൂടുതലല്ലേ അവിടെ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ വീട് പണിയ്യുന്ന സ്ഥലത്തേക്കേ സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ അതായത് ഒരു ടോർസ് ഒക്കെ കയറി വരാനുള്ള വഴി സൗകര്യം ഒക്കെ ഉണ്ടോ ടോറസ് കയറി വരുമോ ടോറസ് ഫ്ലാറ്റിനോട് നമുക്ക് വലിയ താല്പര്യം ഇല്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയാ ഏ കുഴപ്പം ഇല്ല ഏറ്വും കുറഞ്ഞത് പത്ത് സെൻറ്റെങ്കിലും വേണം പത്ത് പതിനഞ്ചു വരെയൊക്കെ ആവാം കുഴപ്പം ഇല്ല ഒരു ഒരു രണ്ട് രണ്ടു ലക്ഷത്തിന് അകത്ത് കിട്ടുമോ ഒരു സെൻറ്റിന്

ഇത് എങ്ങനെയാ വല്ലതും ആറ്റുതീരമാണോ റോഡ്സൈഡ് ആണോ എങ്ങനെയാ

മ്മ് വെള്ള ഭൂമി ആയാലും വെള്ളം കയറാതിരുന്നാൽ പോരെ ആ ആ ആ ആ എന്നാൽ പിന്നെ നമുക്ക് അതൊന്നു പോയി കണ്ടാലോ ഞാൻ അടുത്ത ബുധനാഴ്ച്ച അങ്ങോട്ട് വരാം ആ ആ ശരി എന്നാൽ ആ ആയിക്കോട്ടെ ഓക്കെ എന്നാൽ